ഗ്രാമീണ മേഖലയില് ഇപ്പോള് ഏറ്റവും കൂടുതല് നേരിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റര്നെറ്റിന്റെ സംവിധാനമാണ് വളരെ അധികം മോശമായിട്ടുള്ള ഇന്റര്നെറ്റ് സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇപ്പം നിലവില് കാരണം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഭാഗത്ത് മാത്രം നല്ല റേഞ്ച് ഉണ്ട് ചില ഭാഗത്ത് അധികം റേഞ്ചില്ല ആ ഒരു സംഭവമാണ് പിന്നെ എല്ലാ വീട്ടിലും വൈഫൈ വെക്കണ്ട ഒരാവശ്യം വന്നിരിക്കുന്നു വീടുകളില് തീരെ റേഞ്ച് കിട്ടാറില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പുറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് റേഞ്ച് ഉണ്ടാകും ചില സ്ഥലത്ത് റേഞ്ച് ഉണ്ടാകില്ല എത്ര അധികം ടവറുകള് വന്നാലും റേഞ്ചിന്റേത് ഭയ്ങ്കര കുറവാണ് ഫൈവ് ജി അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിലും കേരളത്തിലും വന്നു എന്ന് പറയുമെങ്കിലും നമ്മുടെ ഗ്രാമത്തില് ഇതുവരെ ഫൈവ് ജീന്റെ ഒരു റേഞ്ച് പോലും വന്നിട്ടില്ല അതെപോലെതന്നെ ഫോര് ജിയും ഇപ്പം വല്ലാണ്ട് ഡണ്ലോഡ് സ്പീഡും അതൊ എട്ട് അപ്പ്ലോഡ് സ്റ്റൂപ്പ് അപ്പ്ലോഡ് സ്പീഡും ഇല്ലാത്ത നെറ്റാണ് കിട്ടുന്നത് അത് വളരെ അധികം ഒര് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് എല്ലാവര്ക്കും ഒരേപോലെ നെറ്റും കിട്ടുന്നില്ല ഒരു നാലാള് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിന്റെ റേഞ്ച് കുറയുക അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് വളരെ അധികം മുൻപന്തിയിലുള്ള രാജ്യമാണ് അഥവ സ്റ്റേറ്റാണെന്ന് പറഞ്ഞാലും ഗ്രാമത്തിലെ ദെ നെറ്റിന്റെ പ്രശ്നങ്ങള് വളരെ അധികം പ്രതൂല്യോമായിട്ട് ആള്ക്കാരെ ബാധിക്കുന്നു വലിയൊര് പ്രശ്നം തന്നെ ആയിട്ടാണ് അത് കാണുന്നത് സാങ്കേതിക മേഖലയില് ഈ പറഞ്ഞ പോലെ നെറ്റും അതെപോലെതന്നെ നമ്മളുടെ റോഡുകളും റോഡുകളും വളരെ അധികം മോശം തന്നെയാണ് ഇപ്പോൾ കുറെ ഒക്കെ റെഡിയായി എങ്കിലും ഒര് കാലത്ത് തീരെ മോശമായിരുന്നു റോഡുകള് അതെപോലെതന്നെ എമര്ജന്സി ഡിപ്പാര്ട്ട്മെന്റിന്റെ അ അപാകതയും ഇവിടെ നല്ല പോലെ കാണുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടായാൽ അപ്പം തന്നെ വിളിച്ച് പറയാനും അപ്പം തന്നെ വന്ന് ആക്ഷന് ചെയ്യാനും ആള്ക്കാരുണ്ട് ആള്ക്കാരില്ലാത്തത് വളരെ നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഷോപ്പിംഗ് കോംപ്ലെക്സുകളോ അഥവ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള് കിട്ടണമെങ്കില് നമ്മള് കുറച്ച് ദൂരം സഞ്ചരിക്കുക തന്നെ വേണം അതിനുള്ള സംവിധാനങ്ങളിവിടെ ഇല്ല അതൊക്കെ തന്നെയാണ് ഗ്രാമങ്ങളില് പ്രദേശത്ത് സാങ്കേതിക മേഖല നേരുന്ന പ്രധാന വെല്ലുകളി വെല്ലുവിളികള്